ആ ഹലോ ആ ഹലോ സാർ ഇത് എവർ ഷൈൻ ഫുട്ബോൾ കോച്ചിങ് സെൻറ്ററല്ലേ സാർ എനിക്ക് ഫുട്ബോളില് ജോയിൻ ചെയ്യാൻ താൽപര്യവുണ്ടാരുന്നു പുതിയ ടീമിലേക്ക് അപ്പം എന്തേലും ആ അതെ സാർ

ഓക്കേ ആ ആ സാറെ ഞാനിപ്പം പ്ലസ്ടൂവില് പഠിക്കുന്ന ഒര് സ്റ്റുഡൻറ്റാണ് അപ്പം എനിക്ക് രാവിലെത്തൊട്ട് ഉച്ച വരെ എന്നും ക്ലാസ്സുണ്ട് ഇപ്പം വെക്കേഷനായതുകൊണ്ട് എനിക്ക് ബേസിസ് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് ട്യൂഷൻ സെൻറ്ററില് അപ്പം എനിക്ക് രാവിലെത്തൊട്ട് മോണിങ് സെക്ഷൻ രാവിലെത്തൊട്ട് ഉച്ച വരെ ആ അപ്പം എനിക്ക് ആ ഓക്കെ ആ ഓക്കെ

ഓക്കേ പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് സാർ ഓക്കേ ആ ഓക്കെ ഇത് അത് ഓക്കേ ആ ഓക്കെ സാർ താങ്ക് യൂ ഞാനടുത്ത ദിവസം തന്നെ വന്ന് ജോയിൻ ചെയ്തോളാം ഓക്കേ ഓക്കെ ഓക്കെ സാർ ഈ നമ്പറില് കോണ്ടാക്ട് ചെയ്താൽ മതിയോ ആ ഓക്കെ ആ ഓക്കെ ഉം ഓക്കെ സാർ താങ്ക് യൂ